ആ ആ പറയൂ ആ ആ ആ അതെ കളഞ്ഞത് ആ നമ്മുടെ വീട്ടിലെ തന്നെ തെങ്ങിലെ തേങ്ങ ആണെ ആ ഇത് നമ്മളെ ഇവിടെ തന്നെ ആട്ടീട്ട് കൊടുക്കുന്നത് ആണ് ആ നാച്ചുറല് ഏ അത് അല്ല ഇത് നാച്ചുറൽ ആണ് കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് വരെ എണ്ണ തേച്ച് കുളിപ്പിക്കാം പിന്ന പാചകത്തിന് എല്ലാത്തിനും ഉപയോഗിക്കാം കെമിക്കൽ ഒന്നും ഇല്ല ഒന്ന് തൊട്ട് എല്ലാം ഹ്മ് പിന്ന ഇല്ല അത് നമ്മൾ ഈ പാമോയില് കമ്പനിക്കാര് വന്നപ്പം അവര് ഇണ്ടാക്കിയ ഓരോ പുതിയ റൂൾസ് ആണ് അപ്പം അവരുടെ പ്രൊഡക്റ്റ് വാങ്ങി ഈ വെളിച്ചെണ്ണ പണ്ട് മുതല് ഉപയോഗിക്കുന്നതല്ലേ വലിയ പ്രശ്നം ഒന്നും ഇല്ല ഒര് കുഴപ്പം ഇല്ല എല്ലാത്തിനും ഉപയോഗിക്കം അതെ അതെ കുഞ്ഞി കുട്ടികൾക്ക് എണ്ണ തേച്ച് വരെ കുളിപ്പിക്കാം ഒര് കുഴപ്പം ഇല്ല കെമിക്കൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല വീട്ടില് തന്നെ ഉപയോഗിക്കുന്ന തെങ്ങിലെ എണ്ണ ആണ് അപ്പം നമ്മള് പ്രത്യേകിച്ച് അതെ അതെ ആ അല്ല എണ്ണ നമ്മള് ഈ വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചുമ്പോൾ നമ്മള് ചെമ്പരത്തിയും വേറെ ഒക്ക ഇട്ടിട്ട് ആണ് കാച്ചുന്നത് കറിവേപ്പിലയും അതൊക്ക ഇട്ടിട്ട് ആണ് അതെ അലോവേറ ഒക്കെ ഇട്ടിട്ട് കാച്ചിയിട്ട് നമ്മള് അത് വെറെ സെപ്പറേറ്റ് ഉണ്ടാക്കും അത് മുടി വളരാൻ വേണ്ടീട്ട് നമ്മള് വേറെ കാച്ചും നമ്മള് പുറത്ത് വെച്ചിട്ട് പത്ത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് അത് നൂറ്റി എഴുപത് എണ്ണ ആണ് ലിറ്ററിന് നമ്മള് പുറത്ത് അങ്ങന സെയിൽ ഇല്ല ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോവാണ് എല്ലാവരും

ഇല്ല അങ്ങനെ പറ്റുന്നില്ല നമ്മള് പാചകത്തിനും കുട്ടികൾക്ക് എണ്ണ തേക്കാൻ അതിന് ഒക്ക മുടിയില് എണ്ണ കാച്ചാനും അതിന് ഒക്ക ആണ് ഉപയോഗിക്കുന്നത് ഇല്ല അത് ഓരോ കുട്ടികളുടെ പോലെ ഇരിക്കും ഡയറക്റ്റ് ആയിട്ട് തേച്ച് കൊടുത്താലും കുഴപ്പം ഇല്ല ചില കുട്ടികളത് വെച്ച് അത് ശീലിച്ചിട്ടുണ്ടാവും കാച്ചീട്ട് ഇട്ട് കൊടുക്ക്ന്നത് തണുപ്പ് എറങ്ങാണ്ട് ഇരിക്കാൻ അപ്പം അങ്ങനെ ഉപയോഗിക്കാ കുഴപ്പം ഇല്ല ആ എങ്ങനെ ഗൂഗിൾപേ ഉണ്ട് നമ്മടേൽ നേരിട്ട് വന്ന് തന്നാലും കുഴപ്പം ഇല്ല നമ്മള കേന് കേൻ ഉണ്ടാവും നമുക്ക് ഇവിടെ ഇവിടന്ന് തന്ന് വിടും അഞ്ച് ലിറ്ററ് ഇല്ല ഒര് ദിവസം നമ്മള് വരുന്നതിന്റെ ഒര് അര മണിക്കൂറ് മുമ്പ് ഇവിട സ്റ്റോക്ക് ഉണ്ടാവും ഒര് അര മണിക്കൂറ് മുമ്പ് പറഞ്ഞാൽ മതി അതെ അതെ ഓ എടുത്തേക്കാം